ആ ഇതൊരു ട്രാവൽ ഏജൻസി അല്ലേ ആ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് എൻ്റെ വൈഫിനെയും കൂട്ടിയിട്ട് ഒന്ന് തിരുവനന്തപുരം വരേ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതായത് ഇരുപത്തി ഒൻപതാം തിയതി എനിക്കൊന്ന് പോകണമായിരുന്നു അപ്പോൾ അവിടെ കാറുകൾ ഒക്കേ അവൈലബിൾ ആയിട്ട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഓണം ഒക്കേ അല്ലേ അപ്പം നിങ്ങളുടെ കാറ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടാകും അത് കൊണ്ടാണ് അല്ല നേരത്തേ അതല്ലാ നേരത്തേ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇപ്പം ഈ ഓണത്തിൻറ്റെ തിരക്കൊക്കേ ആയത് കൊണ്ട് എല്ലാവരും ട്രിപ്പും കാര്യങ്ങളൊക്കേ ആണല്ലോ അപ്പോൾ ആ ദിവസം എനിക്ക് വണ്ടി കിട്ടുവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓ ര രണ്ട് വണ്ടി ഉണ്ടല്ലെ ആ എത്ര രൂപയാണ് അഡ്വാൻസും കാര്യങ്ങളൊക്കേ വേണ്ടത് ബുക്ക് ചെയ്യാന് ആ ബുക്ക് ചെയ്യാൻ അയ്യായിരം രൂപ അല്ലെ അപ്പോൾ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങള് എന്താ പറയുക അതിനെ മറ്റേ നമ്മൾ പോകുന്ന ആ ട്രിപ്പിലേക്ക് ഇത് ആഡ് ചെയ്യുകയില്ലെ ആ പൈസ ഓക്കേ ഓക്കേ ഓക്കേ അതിനകത്ത് അഞ്ഞൂറു രൂപ നിങ്ങള് നിങ്ങളുടെ ചാർജായിട്ടെടുക്കും അ ഓക്കേ ആ ഓക്കേ അങ്ങനെ ആണെങ്കിൽ ഇരുപത്തി ഒൻപതാം തിയതി ഒന്ന് നിങ്ങള് വരുവായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു ഞാൻ ചിലപ്പോൾ പറയുന്ന സ്ഥലങ്ങളിലൂടെ ഒക്കേ പോകേണ്ടി വരും കാരണം എന്ത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പല ഇട റോഡുകളിൽ ഒക്കേ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒക്കേ ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് വേണ്ടിയിട്ട് ആണ് കെട്ടോ ആ ഓക്കേ ഓക്കേ അങ്ങനെ ആണെങ്കിൽ ഒന്ന് പോന്നോ കെട്ടോ